ആൻറ്റീ എനിക്ക് യു ക്കേലഡ്മിഷൻ കിട്ടി ഓക്സ്ഫോഡ് യൂണിവേഴ്സിറ്റിയിലാണ് പക്ഷെ ഒരു പ്രശനമുണ്ടാൻറ്റീ എന്റെ പാസ്പ്പോട്ടെക്സ്പ്പെയറായിപ്പോയി ഞാനത് പുതുക്കാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഒന്നുങ്കൂടെ സ്പീഡപ്പാക്കാൻ ആൻറ്റി അങ്കിളിന്റടുത്തൊന്ന് പറയുമോ അങ്കിളിന് ആരേലും പാസ്പ്പോട്ടോഫീസിലുണ്ടേലൊന്ന് സംസാരിച്ച് ഒന്ന് സ്പീഡപ്പാക്കിത്തരാൻ അങ്കിളെന്റെയടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്കിളിന്റെയൊരു ഫ്രണ്ട് പാസ്പ്പോട്ടോഫീസില് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അപ്പോള് അങ്കിള് ആ ഫ്രെണ്ടിന്റടുത്ത് സംസാരിച്ചെന്തേലുവൊന്ന് സ്പീഡപ്പാക്കുവാണെങ്കില് എനിക്ക് കുഴപ്പമില്ലായിരുന്നു നല്ല ഉപകാരമായിരുന്നു അല്ലെങ്കില് ആൻറ്റി എന്റെ ഈയൊരു വർഷം പോകും പോയാല്പ്പിന്നെ അടുത്ത വർഷം ഇവിടെത്തന്നെ അഡ്മിഷൻ കിട്ടണമെന്നുമില്ല ആൻറ്റിയൊന്നങ്കിളിന്റടുത്ത് പറയുമോ ആ ശരി